എന്നെപ്പറ്റി പറയുക പറഞ്ഞാൽ എൻ്റെ പേര് ഷിജിത്ത് എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ ഉണ്ണി അനിയത്തിയാണ് കേട്ടോ അച്ഛൻ്റെ പേര് കൃഷ്ണകുട്ടി അമ്മേൻറെ പേര് വന്നിട്ട് സരിത ഉണ്ണീൻറെ പേര് പറഞ്ഞിട്ട് ശിഖ അച്ഛനും അമ്മയും കൂലി പണിക്കു പോവണു മുന്നേ ഉണ്ണി വന്നിട്ട് സിക്സ്ത് സ്റ്റാൻഡേഡിൽ പഠിക്കണൂ പിന്നെ ഞാൻ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഐ ടി ഐ വരെ പഠിച്ചു കഴിഞ്ഞു ഒന്നാം ക്ലാസ് തൊട്ട് എൽ കെ ജി യു കെ ജി ഒന്ന് തൊട്ട് നാലാം ക്ലാസ് വരെ ഞാൻ എൻറടുത്തുള്ള ചെറിയ സ്കൂൾ തന്നെയാ പഠിച്ചത് സ്കൂൾ അതേ എൽ പി സ്കൂളാണ് എ എൽ പി സ്കൂൾ പിന്നെ അഞ്ചാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെ ഞാൻ യു പി സ്കൂളിലേക്ക് പോയി അത് വീണ്ടും കുറച്ച് അപ്പുറത്ത് ചമ്പക്കുളത്താണ് പിന്നെ അവിടം കഴിഞ്ഞ് പിന്നെ എട്ടും ഒൻപതും പത്തും ഞാൻ പഠിച്ചത് ഹൈ സ്കൂളിലാണ് അത് കോട്ടയം സ്കൂളിലാണ് ജി എച്ച് എസ് കോട്ടയം സ്കൂളിലാ പഠിച്ചത് പിന്നെ അവിടം കഴിഞ്ഞ് ഞാൻ എൻ്റെ പത്ത് ടെൻത്ത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതിലോ മറ്റോ ആണ് കഴിഞ്ഞത് അത് കഴിഞ്ഞ് നേരെ പ്ലസ് വണ്ണും പ്ലസ് ടൂവും പോയി അത് പാലക്കാട് ഗുരുഗുലത്താ പഠിച്ചത് അത് പ്രൈവറ്റ് സ്കൂളായിരുന്നു അവിടെ ഞാൻ എടുത്തത് ഹ്യൂമാനിറ്റീസായിരുന്നു എടുത്തത് അത് അത് പഠിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ അതിൽ പ്ലസ് ടു ഇതാ കഴിഞ്ഞു പ്ലസ് ടു അത്യാവശ്യം മാർക്കോടെ പാസ്സായി പിന്നെ പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ നേരെ ഐ ടി ഐയിൽ പോയി ഞാൻ ഐ ടി ഐ പഠിച്ചത് കോടിമന്നം മുല്ലപ്പെറ ഐ ടി ഐയിൽ അവിടെ അന്ന് ഐ ടി ഐ ഞാൻ വെൽഡിംഗാ പഠിച്ചത് വെൽഡിംഗ് പഠിച്ചത് അത് അത് നല്ലൊരു സബ്ജക്ട് ഒക്കെ തന്നെയായിരുന്നു വെൽഡിങ്ങും പഠിച്ചു വെൽഡിങ്ങു കഴിഞ്ഞു അപ്പോൾ അതിന് ഞാൻ വെൽഡിങ്ങു കഴിഞ്ഞു ഇപ്പോൾ അതിന് പറ്റിയ ജോബ് നോക്കാണ് അതിന് പറ്റിയിട്ടുള്ളത് പിന്നെ എൻറെ എറ്റവും വലിയ ഡ്രീമ് പറഞ്ഞാൽ എനിക്കൊരു ഫുട്ബോൾ കളിക്കാരനാകണമെന്നായിരുന്നു എന്റാഗ്രഹം ഫുട്ബോൾ കളിക്കാരനെനിക്കാകാൻ പറ്റാത്തത് ഇപ്പോഴും ഭയങ്കര സങ്കടമുണ്ട് അതെൻറ്റെ മനസ്സിലെ ഏറ്റവും വലിയ സങ്കടമായി കിടക്കണ ഫുട്ബോൾ കളിക്കാൻ പറ്റിയില്ല എന്നായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി ഒരു വട്ടമെങ്കിലും ബൂട്ടണിയണം എന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷേ എനിക്കത് നടന്നില്ല എന്റെ മനസ്സിലിപ്പം നല്ല രീതിയിൽ വേദന കൊള്ളിപ്പിക്കണ കാര്യമാണ് ഫുട്ബോളിൽ എവിടെ എവിടേയും എത്താൻ പറ്റിയില്ലല്ലോ പറഞ്ഞിട്ടത് ആലോചിക്കുമ്പോൾ എനിക്കൊരു ഫുട്ബോള് കളിക്കാൻ ആഗ്രഹമുണ്ട് എൻറമ്മ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അത് സപ്പോർട്ടിന് എൻറമ്മ ഇണ്ടേനൂ പക്ഷേ എനിക്കങ്ങനെ ഒരു സാമ്പത്തിക പ്രശ്നമായതു കൊണ്ട് ഫുട്ബോളിന് ഇനി കോച്ചിങ്ങിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല ഫുട്ബോളിന് എനിക്ക് അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും അതിനൊരു സങ്കട ഉണ്ട് എനിക്ക് ഇപ്പോൾ പോവാം പറഞ്ഞാൽ ഇപ്പം പോവാനുള്ള ചെറിയ സാഹചര്യം വന്നപ്പോൾ എൻറെ വയസ്സ് കഴിഞ്ഞു ഇനി ഞാനതിനു ഫുട്ബോളു വെച്ച് പോവാന്ന് പറയുമ്പോൾ എനിക്ക് പറ്റില്ല എനിക്ക് അതിനെപ്പറ്റി ഇപ്പോഴും ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട് ഞാൻ ദിവസവും വൈകുന്നേരം അഞ്ച് മണിയാവുമ്പോൾ ഫുട്ബോളു കളിക്കാൻ പോവും ഫുട്ബോളു ദിവസം കളിക്കും ഫുട്ബോളു കളിക്കുമ്പോൾ എനിക്ക് എപ്പോൾ ഒരു പോസിറ്റീവ് വൈബാ തോന്നാറ് എനിക്ക് എന്ത് പ്രശ്നം സങ്കടം വന്നാലും ഞാൻ ഫുട്ബോളു കളിക്കുമ്പം എൻ്റെ സങ്കടം മറക്കും എനിക്കങ്ങനെയാ ഫുട്ബോള് വൈകുന്നേരം അഞ്ച് മണി തൊട്ട് ഏഴു മണി വരെയുള്ള രണ്ട് മണിക്കൂർ ടൈമിലാണ് എനിക്കേറ്റവും ഞാൻ ടൈമ് സ്പെൻഡ് ചെയ്യല് ഫുട്ബോള് കളിക്കുമ്പോൾ എനിക്ക് ഏറ്റവും പോസിറ്റീവ് കാര്യങ്ങളേ കിട്ടാറുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഫുട്ബോള് കളിക്ക് ഞാൻ മാറിക്കോളും വീട്ടിലുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സങ്കടങ്ങളും കാര്യങ്ങളും ഫുട്ബോള് കളിക്കുമ്പോൾ എനിക്ക് എന്തായാലും മാറും എനിക്ക് ഫുട്ബോള് അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ ഇതാ ഫുട്ബോളിന് ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അതിലൊന്നും എത്താൻ പറ്റുന്നില്ല എന്ന സങ്കടമുണ്ട് ഫുട്ബോളിൽ പിന്നെ ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ ഐ ടി ഐ കഴിഞ്ഞു വെൽഡിങ്ങ് പഠിച്ചതുകൊണ്ട് ഇപ്പോൾ വെൽഡിങ്ങിന്റെ തന്നെ ഒരു ഇന്റ അഞ്ച് കുറച്ച് ഇന്റർവ്യൂ കാര്യങ്ങളും കഴിഞ്ഞു കുറച്ചെണ്ണം എനിക്ക് കിട്ടി എനിക്ക് പോവാൻ ഇഷ്ടപ്പെടാത്തതു കൊണ്ട് ഞാൻ കുറേ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഐ ടി ഐ അപ്രന്റീസ്ഷിപ്പ് ചെയ്യാൻ വേണ്ടി എനിക്ക് കഞ്ചിക്കോട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ കഞ്ചിക്കോട് എനിക്ക് ബസും ട്രെയിനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ രണ്ടാമത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഒരു ഒരു എന്താണ് കാറ് വാഷിങ്ങിൻറെ ഒരു ഇതിനായിരുന്നു പോയത് പക്ഷെ എനിക്കവിടെ പറ്റിയില്ല എനിക്കത് പറഞ്ഞാൽ അവിടെ ടൈമ് കാര്യങ്ങളൊക്കെ പ്രശ്നമായപ്പോൾ എനിക്ക് അവിടെ പോകാൻ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല പിന്നെ അവിടെ പോയി പണി ചെയ്യുകയെന്ന് പറഞ്ഞാൽ താമസിച്ച് പണി ചെയ്യണം പക്ഷേ താമസിച്ച് പണി ചെയ്യുക പറഞ്ഞാൽ അവിടെ റൂമും കാര്യങ്ങളും അത്ര ഫെസിലിറ്റിയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ അവിടെ നിൽക്കാണ്ടായത് പിന്നെ വന്നപ്പോൾ ബാംഗ്ലൂരും ചെന്നയീന്റേയും ഇനി ഇന്റർവ്യൂ കഴിഞ്ഞു ഇപ്പോൾ ഇതിപ്പം കഴിഞ്ഞ ചെന്നൈക്കെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ കഴിഞ്ഞു അവിടെ ആയിരുന്നു വർക്ക് പക്ഷെ അതിലെനിക്ക് പോകാൻ താല്പര്യം ഇല്ല എന്താണ് ഞാൻ വെൽഡിങ്ങ് പഠിച്ചതു കൊണ്ട് എനിക്ക് വെൽഡിങ്ങിൻറെ രീതിയിൽ തന്നെ എനിക്ക് പോവാനായിരുന്നു താൽപര്യം എനിക്ക് പിന്നെ അത് കഴിഞ്ഞ് ബംഗളൂരില് തന്നെ കിട്ടി പക്ഷെ ബംഗളൂരു കിട്ടിയതും പക്ഷെ ബംഗളൂരിൽ പോവാം പറഞ്ഞു അവർ അവരെന്നെ കോണ്ടാക്റ്റ് ചെയ്യാമെന്നാ പറഞ്ഞത് പക്ഷെ അവരെന്നെ ഓണം കഴിഞ്ഞിട്ടും കോണ്ടാക്ട് ചെയ്യാ കോണ്ടാക്ട് ചെയ്യാണ്ടായി അപ്പം ഞാനായിട്ടവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അയച്ചോന്നുണ്ടേനു അവിടത്തെ കമ്പനിക്ക് എന്താണ് ബാംഗളൂരിലെ ഇലക്ട്രോണിക് സിറ്റി കഴിഞ്ഞിട്ടാ വന്നത് അവർ പറഞ്ഞിട്ട് സമൃദ്ധി ഗ്രൂപ്പ് ഇന്ത്യ ആയിരുന്നു എനിക്ക് ഇന്റർവ്യൂ കഴിഞ്ഞത് പക്ഷേ ഇന്റർവ്യൂ കഴിയുവാണെങ്കിൽ എനിക്കവിടെ അവര് പിന്നേയും എനിക്കയച്ച് തന്നത് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതോടെ കൂടെയായിരുന്നു എനിക്കയച്ചുതന്നത് പക്ഷെ എനിക്കതിൽ പോവാൻ താൽപര്യം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴും ഞാൻ വേറെ നോക്കികൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജോലിക്കു വേണ്ടീട്ടു തന്നെയും ഇപ്പം മിക്കവാറും ഞാൻ നോക്കികൊണ്ടിരിക്കുകയാണ് പക്ഷേ ജോലി ഇവിടെ എവിടെയും ശരിയാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം വേറെയെല്ലം വേറെ ഇന്റർവ്യൂ കൂടി കഴിഞ്ഞ് ഇനിയിത് പന്ത്രണ്ടാം തീയ്യതി ഇന്റർവ്യൂ ഉണ്ട് അപ്പോൾ അത് കൂടെ അറ്റൻഡ് ചെയ്യണം എന്നാ ആഗ്രഹം അതിൽ കിട്ടിയാൽ അവിടെ കയറി പറ്റണം കുറച്ച് ഡ്രീമും കാര്യങ്ങളും ഉണ്ട് അതൊക്ക അച്ചീവ് ചെയ്യണമെങ്കിലെനിക്ക് ജോലി മസ്റ്റാണ് അതുകൊണ്ടുതന്നെയാണ് ജോലിക്കു പോകാൻ നിൽക്കണേ പിന്നെ പറയുകയാണേ എനിക്കിപ്പോൾ

എന്നെപ്പറ്റി പിന്നെ പറയുകയാണെ പിന്നെ കമ്മിറ്റൊക്കെ ആണോ പറഞ്ഞാൽ കമ്മിറ്റല്ല കമ്മിറ്റഡ് ആകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഒരു പെൺകുട്ടിയോട് ഇഷ്ടം ഉണ്ട് പക്ഷേ ആ ഇഷ്ടം ഒന്നും അവിടെ വൺ സൈഡ് മാത്രമാണ് ഇങ്കട് ഇങ്കട് ഉണ്ടോയെന്നറിയില്ല അവളായിട്ട് മെസ്സേജജ് അയക്കാറുണ്ട് ഡെയിലി മെസ്സേയ്ജ് അയക്കുമ്പോൾ അവൾ റി ആ മെസ്സേയ്ജ് മാത്രമുണ്ട് പിന്നെ അവളോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നെ ഇഷ്ടം തിരിച്ച് ഉണ്ടോ എന്ന് തിരിച്ച് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും അവൾക്കില്ല അവൾക്കിപ്പം അങ്ങനെ താൽപര്യം ഇല്ലാന്നൊക്കെയാ പറഞ്ഞത് ഞാനെന്താ വെയ്റ്റ് ചെയ്യാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെയടുത്ത് എന്തായാലും കാര്യം നടക്കട്ടെ പറഞ്ഞു അവളുടെ കാര്യം ഒന്ന് പോസിറ്റീവായി കിട്ടിയാൽ അടിപൊളിയായി പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു പക്ഷേ അവളുടെ മാത്രം കിട്ടണില്ല അതാണ് ഏറ്റവും വലിയ സങ്കടം ആയത് ഇനി അത് അവളുടെ കൂടെ കാര്യങ്ങൾ കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഇനി ഒന്നുമില്ല എനിക്ക് പിന്നെ കുറച്ചു ഒരു ജോലി വേണം അതാണ് ഏറ്റവും വലിയ ഡ്രീം ജോലി കഴിഞ്ഞ് കുറച്ച് വീട്ടിൽ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ കാര്യങ്ങൾ തീർക്കണം അതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം